ഞങ്ങളുടെ ഇവിടെയൊരു വെള്ളച്ചാട്ടം ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിലോട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട് എങ്കിൽക്കൂടി അവിടെ മതിയായ വിഭവങ്ങൾ അതായത് താമസം അവരൊന്ന് വന്നെങ്കിൽ വന്നിട്ടെങ്കിൽ താമസിക്കാൻ മതിയായ സ്ഥലം ഇല്ല വീടോ കാര്യങ്ങളോ ലോഡ്ജോ അങ്ങനെയുള്ളതൊന്നും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ഗതാഗതം ഗതാഗതം ഒട്ടുമില്ല വഴിസൗകര്യമൊന്നുമില്ല അതുകൊണ്ട് ആളുകൾ വരാനും ബുദ്ധിമുട്ടാണ് ടാർ ചെയ്യാനും റോഡ് അങ്ങോട്ടുനിന്ന് റോഡ് നല്ലപോലെ ആക്കാനും ഒക്കെ സഹായകരമാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ടൂറിസ്റ്റുകളെ നമുക്ക് വരുത്താൻ സാധിക്കും ഇതിന് അടിസ്ഥാന സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ ലോഡ്ജ് വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടുതന്നെ ടൂറിസ്റ്റുകൾക്ക് വന്ന് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവ്വഹിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് ഒരു കുളിമുറി നല്ല ടോയ്ലറ്റ് പോലുള്ള സൗകര്യങ്ങളൊക്കെയും ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിനോടനുബന്ധിച്ച് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റുകൾ വർധിച്ചുവരുന്ന സന്ദർഭം സന്ദർശനങ്ങൾ നമുക്ക് അത് കൂടുതലാക്കാൻ സാധിക്കും താമസസൗകര്യത്തോടുതന്നെ ഫുഡ് കാര്യങ്ങൾ ഫുഡ് താമസസൗകര്യത്തിനോടൊപ്പം ലോഡ്ജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡിനുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്കൊരു സൗകര്യമായിരുന്നത് ഇപ്പം ഇപ്പം വരുന്നവർക്ക് ഇവിടെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടാണ് അവിടെ വന്ന് കണ്ടു ഉടനെ തന്നെ മടങ്ങുന്നു അതാണ് അവിടുത്തെ അവസ്ഥ അതുകൊണ്ട് വലിയ ഒരു വിനോദസഞ്ചാരകേന്ദ്രം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ ആളുകൾ വരുന്ന സ്ഥലം കൂടിയാണിത് താമസസൗകര്യം ആണെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ വന്നും സമയം അതിക്രമിച്ചു കഴിഞ്ഞാൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് തിരിച്ചുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ അവർക്ക് അവർക്ക് സ്ത്രീകളേയും കുട്ടികളേയും തന്നെ ആകർഷിച്ച് പ്രത്യേകിച്ച് ആകർഷിച്ചുകൊണ്ട് അവർക്കൊരു സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കണം പിന്നെ ചെറിയൊരു റോഡ് സൗകര്യം ആയിക്കഴിഞ്ഞാൽത്തന്നെ നോർമലി ആളുകൾ ഇങ്ങോട്ട് കടന്നുവരികയും കൂടുതൽ വിനോദസഞ്ചാരകേന്ദ്രം ആവുകയും ചെയ്യും അത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ് റോഡ് ഇടയക്കിടയ്ക്ക് റോഡുകളെല്ലാം ടാർ ചെയ്യാതെ കിടക്കുന്നതുകൊണ്ട് അവർക്ക് വന്ന് വലിയ നല്ല നല്ല വണ്ടികൾക്കൊന്നും വരാൻ പറ്റത്തില്ല ഓട്ടോയിലൊക്കെ കയറിയാണ് സാധാരണ ഓട്ടോയൊക്കെ പോകുന്ന വഴികളാണ് കൂടുതലും ഉള്ളത് ഇടയ്ക്ക് ഉള്ള വഴികളെല്ലാം രണ്ട് കാറുകളുണ്ട് പിന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ സ്വന്തം വണ്ടിയും കൊണ്ടായിരിക്കും വരുന്നത് അവർക്കപ്പം അതിലെ ആ വണ്ടി കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് റോഡൊരു ടാറിങ് ആകുകയാണെങ്കിൽ അങ്ങോട്ട് പോവാനും ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും ചെറിയൊരു പാർക്ക് പോലെയോ അല്ലെങ്കിലൊരു പൂന്തോട്ടമോ എന്തെങ്കിലുമൊക്കെ അവിടെ ഒന്ന് നിർമ്മിക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ അട്ട്രാക്ഷൻ ആക്കാൻ സാധിക്കും